ഞാൻ നിയമപരമായി പേര് മാറ്റാനായിട്ട് ആദ്യമായിട്ട് കോർപറേഷനിൽ പോവും കോർപറേഷനിൽ പോയി അവിടെ നിന്ന് റിസെപ്ഷനിൽ പോയതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അത് കൊടുത്ത് അതിൻ്റെ ഫീസും അടച്ച് കഴിയുമ്പോൾ ഫോമ് ഫിൽ ചെയ്ത് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ അവർ എന്തു ചെയ്യും അവർ നമ്മളെ അറിയിക്കും അപ്പം നമ്മുടെ പേര് നിയമപരമായി മാറ്റുമ്പോൾ അത് ഗസറ്റിൽ ആയിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പം ഗസറ്റ് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതും മുഖാന്തിരം ആ പബ്ലിഷും കൊണ്ട് ഞാൻ പാൻ കാർഡ് സപ്പോർട്ട് ടീമുമായിട്ട് ബന്ധപ്പെടുകയും അവിടെ ഇതിൻ്റെ കോപ്പി കൊടുക്കുകയും ചെയ്യും അതിനുശേഷം പിന്നീട് പാൻ കാർഡ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് പാൻ കാർഡ് സപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ടീമുകളുടെ അടുത്ത് ചെന്നിട്ട് ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിക്കുകയും അതനുസരിച്ച് അവർ പറയുന്ന നിയമാവലികൾ അനുസരിച്ചുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊടുക്കുകയും ചെയ്യും